ഹലോ ന്യൂ ഫോർ റെസ്റ്റോറൻറ്റ് അല്ലേ ആ ഞാൻ നേരത്തെ ഒരു ഓർഡറിനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ആ യെസ് യെസ് അപ്പോൾ ഞാൻ താമരശ്ശേരിയിലേക്ക് ഫുഡ് എത്തിക്കാൻ ആയിരുന്നു പറഞ്ഞത് ആ അതിനു ചെറിയൊരു ചേഞ്ച് ഉണ്ട് ആ എനിക്ക് ഒരു അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട് അപ്പോൾ എനിക്ക് അതിനായിട്ട് പോകാൻ പോവേണ്ട ആവശ്യം വന്നു അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വയനാട് താമരശ്ശേരി റൂട്ടിൽ ഈങ്ങാപ്പുഴ എന്ന സ്ഥലത്തേക്ക് ഫുഡ് എത്തിക്കുമായിരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ എളുപ്പമായേനെ ഞാൻ ഒരു മൂന്ന് മന്തി ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത് അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ചെറുതായി ചെറുതായിട്ട് ഒന്ന് കൂട്ടണം അതിനു വേണ്ടി വിളിച്ചതായിരുന്നു ആ യെസ് അപ്പോൾ അതിനു വേറെ ചാർജ് എന്തെങ്കിലും വേണമെങ്കിൽ അതും തരാം പറഞ്ഞാൽ മതി ആ ഡെലിവറി ചാർജ് യെസ് യെസ് ആ അപ്പോൾ നിങ്ങൾ അവിടെ ഇരിങ്ങാപ്പുഴ എത്തിയിട്ട് വിളിച്ചാൽ മതി അവിടെ ഞാൻ വന്ന് കളക്ട് ചെയ്തോളാം ആ ഓക്കെ ഓക്കെ ആ അപ്പോൾ ഒരു അഞ്ചു മന്തി വേണം അതായത് കുറച്ചു ക്വാണ്ടിറ്റി കൂടുതൽ വേണം അപ്പോൾ നിങ്ങൾ അത് അനുസരിച്ച് ക്യാഷ് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ക്യാഷ് ഗൂഗിൾ പേ ചെയ്തോളാം ഓക്കെ ആ ഓക്കെ എന്നാൽ ശരി താങ്ക് യൂ